ആ കല്യാണി ട്രാവൽ ഏജൻസി അല്ലേ ആ ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് നാട്ടിൽ ഒരു നെക്സ്റ്റ് വീക്ക് ഒരു ട്വൽത്തൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലേക്കൊന്ന് പോവാനായിട്ടായിരുന്നു ആ അപ്പോൾ നമുക്കൊരു വണ്ടി വേണമായിട്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഡീറ്റേയ്ൽസും കാര്യങ്ങളൊക്കെയൊന്ന് അറിയാനായിട്ടായിരുന്നു വിളിച്ചത് ഇല്ലില്ല ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിൽ വരും ട്രെയിൻ വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അതെ അതെ അതെ അവിടുന്ന് നമ്മളെ പിക്ക് ചെയ്താൽ മതി നമ്മൾ എറണാകുളം ജംഗ്ഷനിലാണ് വരുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് അവിടുന്ന് പിക്ക് ചെയ്താൽ മതി ഞങ്ങളൊരു ആറ് അല്ലല്ല ഞങ്ങളൊരാറ് പേരുണ്ടാവും നമുക്ക് അപ്പം ഒരു സിക്സ് സീറ്റർ വണ്ടിയാണ് വേണ്ടത് ആ അപ്പം അത് ഓക്കെ ആ ഓക്കെ നമുക്കപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിരുന്നു നമുക്ക് അതിന് ഡ്രൈവറെ നിങ്ങൾ തരുവോ ആ ആ ഒൻ ഒൻ ആ ഓക്കെ നമ്മളതിൻ്റെ റേറ്റ് വ്യത്യാസം വരും അല്ലേ ഡ്രൈവറെ വയ്ക്കുമ്പോൾ

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു ഫിക്സഡ് റേറ്റ് നിങ്ങൾ എത്രയാണ് കിലോമീറ്ററിന് സാധാരണ വാങ്ങുന്നത് ഉം ഉം ഉം അപ്പോൾ നമുക്കിവിടെ വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങൾ കാണാൻ പറ്റിയതുണ്ടോ ഇവിടെ അടുത്തെങ്ങാനും

ആ അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെ സാധാരണ എത്ര ടൈം എടുക്കും നമ്മൾ ഈ അമ്പലത്തിലേക്ക് ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും ഡ്രൈവർ ഉൾപ്പടെയാണ് വേണ്ടത് ആ ഓക്കെ ഓക്കെ ആ മതി മതി മതി മതി ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി

ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ അതെ അതെ അതെ ആ മതി മതി മതി ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ